പതിനഞ്ച് പത്ത് രണ്ടായിരത്തി നാല് രണ്ട് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്